ഗ്രാമീണ പ്രദേശങ്ങളിലും നഗര പ്രദേശങ്ങളിലും ഒരുപോലെ ഉയര്ന്ന് വരുന്ന ഒരുപാട് രോഗങ്ങളും അസുഖങ്ങളും ഇപ്പോള് നിലനില്ക്കുന്നുണ്ട് അതില് ചിലതൊക്കെയാണ് വയറല് ഫീവര് ചിക്കന്ഗുനിയ ചിക്കന്പോക്സ് മഞ്ഞപ്പിത്തം ടൈഫോയിഡ് മലേറിയ എന്നൊക്കെയുള്ളത് അതില് പലതും നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും നമ്മളുടെ അശ്രദ്ധ മൂലം സംഭവിക്കുന്ന അസുഖങ്ങളാണ് കണ്ടാമിനേറ്റടായ ഫുഡ് ആൻഡ് വാട്ടറില് കൂടെ പകരുന്ന കുറെ അധികം അസുഖങ്ങളുണ്ട് അത് നല്ല ഭക്ഷണം എങ്ങ എവിടെ നിന്ന് കിട്ടണം എവിടെ നിന്ന് കഴിക്കണമെന്നറിയാതെ അറിയുന്ന സ്ഥലത്ത് അറിയാത്ത സ്ഥലത്തൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ ഒരുപാട് അസുഖങ്ങളുണ്ടാവുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവയെല്ലാം കണ്ടാമിനേറ്റട് ഫുഡ് ആൻഡ് വാട്ടറിൽ കൂടെ പകരുന്ന അസുഖങ്ങളാണ് പിന്നെ കു കോവിഡ് നയന്റ്റീന് ലോകം മുഴുവന് ഒരുപോലെ എഫക്ട് ചെയ്ത ഒരു അസുഖമാണല്ലോ അത് എയര്ബോണായിരുന്നു അത് വായുവിലൂടെ പകർന്നിരുന്ന അസുഖമായിരുന്നു കോവിഡ് നയന്റ്റീന് അതിനുവേ അത് നമ്മുടെ അശ്രദ്ധ മൂലം പലര്ക്കും പിടിപെട്ടിട്ട് ഉണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങരുത് ക്വാറന്റ്റയ്ന് വേണമെന്ന് പറഞ്ഞിട്ടും പുറത്തിറങ്ങിയ ഒരുപാട് പേര്ക്ക് ഈ കോവിഡ് നയന്റ്റീന് അസുഖം വന്നിട്ടുണ്ട് പിന്നെ മാസ്ക് ഉപയോഗിക്കുക ഡിസ്റ്റന്സ് പാലിക്കുക അങ്ങനെയുള്ള നിര്ദേശങ്ങള് തന്നിട്ടും അതൊന്നുമനുസരിക്കാണ്ട് ഒരുപാട് പേര്ക്ക് ഈ അസുഖം പകര്ന്നിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ പല അശ്രദ്ധകള് മൂലം നമുക്ക് അസുഖ അസുഖങ്ങള് വരാം ഗ്രാമപ്രദേശങ്ങളില് പ്രധാനമായി കൊതുകിന്റെ ശല്യം മൂലം ഉണ്ടാവുന്ന അസുഖങ്ങളുണ്ട് മലേരിയ അതെല്ലാം കൊതുകിന്റെ കൊതുകിലൂടെ പകരുന്ന അസുഖമാണ് അതിന് നമുക്ക് ചെയ്യാ ചെയ്യാന്നൊരു പോംവഴി എന്ന് പറയുന്നത് കൊതുകുകളെ മുട്ടയിടുന്നത് നശിപ്പിക്കുകയെന്നതാണ് അതിന് വേണ്ടി നമ്മള് അനാവശ്യമായി കിടക്കുന്ന ചിരട്ടകളിലും കുപ്പികളിലും പാത്രങ്ങളിലുമെല്ലാം പുറത്ത് കിടക്കുന്ന വെള്ളം വെള്ളങ്ങള് തട്ടിക്കളയുക അപ്പോൾ അതില് കൊതുകുകള്ക്ക് മുട്ടയിടാൻ പറ്റില്ല അങ്ങനെ നമുക്ക് അസുഖത്തെ തടയാന് സാധിക്കും